എല്ലാ ദിവസവും എന്നെ സഹായിക്കുന്ന ഒരു ആപ്പ് ആണ് വർക്കിങ് ആപ്പ് പലപല ആപ്പുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുക്ക് ഇന്നു ലഭിക്കുന്നതാണ് നമ്മളുടെ ജീവിതത്തെ ക്രമമായ രീതിയിൽ നയിക്കാനും നമ്മുടെ വേണ്ടസമയത്ത് എണീപ്പിക്കാനും ച്ചെയ്യാൻ സാധിക്കുന്നു നമ്മൾ ഇന്ന് ഇപ്പം നാളെ എനിക്ക് രാവിലെ ഏഴുമണിയാവുമ്പം എണീക്കണമെന്നു പറഞ്ഞ് ടൈം സെറ്റ് അലാറം വെച്ച് കഴിഞ്ഞാല് ഉറപ്പായിട്ടും നാളെ രാവിലെ നമ്മൾ ആ സമയത്തു നമ്മളെ വിളിച്ചുണർത്താൻ നമ്മുടെ ഫോൺ നമ്മളെ സഹായിക്കുന്നതാണ് പല രീതിയിലുള്ള ആപ്പുകൾ ഇന്ന് ലഭ്യമാണ് അതുപോലെത്തന്നെ നമ്മളുടെ ഒരിടത്തിരുന്നു മാത്രം ജോലിചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ ആളുകൾക്ക് അത് വിനോദസമ സമയങ്ങൾ കണ്ടെത്താനും വേണ്ടരീതിയിൽ എന്ത് ചെയ്യണം വേണ്ടരീതിയിൽ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞുതരാൻ സ്മാർട്ട് വാച്ചുകൾ ഇന്ന് ലഭ്യമാണ് നിങ്ങൾ വെള്ളം സ്വന്തം അമ്മയും അപ്പനുംപ്പോലും അന്വേഷിച്ചെങ്കിൽ നിങ്ങൾ വെള്ളം കുടിച്ചോ എന്നു എന്നും നമ്മള് അന്വേഷിക്കുന്ന ഒരേ ഒരു സോഷ്യൽസ് മീഡിയാസ് സാധനമാണ് വാച്ച് എന്ന് പറയുന്നത് അത് നമ്മള് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുവാൻ നമ്മെ ഓർമിപ്പിക്കുന്നു അതുപോലെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ വാല്യു ഉള്ളതാക്കി തീർക്കുവാൻ ഇത്തരം സഹായകരമാണ് നാം എന്ത് ചെയ്യണമെന്നും നാം എന്ത് നയിക്കണമെന്നും ഈ ആപ്പുകൾ നമ്മെ സഹായിക്കുന്നു നമ്മൾ ദിനംപ്രതി ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ആപ്പുകളിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് എന്തൊക്കെ ആപ്പുകളാണെന്നും അതെന്താണെന്നും നമ്മൾ ഇൻറ്റെര്നെറ്റ് പോലുള്ള ആപ്പുകൾവഴി നമുക്ക് ലഭിക്കുന്നു അത് എങ്ങനെ ആയിരിക്കണമെന്നും എങ്ങനെ ചിന്തിക്കണമെന്നും നാം ഓരോരുത്തരും കണ്ടെത്തണം എല്ലാ ആപ്പുകളും പലരീതിയിലുള്ള ഇതാണെന്നും നമുക്കു മുമ്പിലെത്തുക അതിലൂടെ പണം സമ്പാദിക്കുന്നവരുമുണ്ട് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു സഹചാര സുഹൃത്ത് തന്നെയാണ് നമുക്ക് വേണ്ടതെന്തും നമ്മുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതാണ് നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് നയിക്കാൻ ഈ ആപ്പ്കൾ സഹായിക്കുന്നു എല്ലാ ദിവസവും നമ്മളെ സഹായിക്കുന്ന നമ്മളെ പട്ടികപ്പെടുത്താൻ സഹായിക്കുന്ന ചില ആപ്പുകൾ എന്തൊക്കെയാണെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം അതിനായി നമുക്ക് ക്ളാസ്സുകൾ ഇന്ന് സ്കൂളുകളിൽ ലഭ്യമാണ് നാം ചോദിക്കുന്നതെന്തും നമുക്ക് ഈ ആപ്പുകളിലൂടെ ലഭിക്കുന്നതാണ് അതുപ്പോലെ തന്നെ ഇപ്പോൾ എനിക്കൊരു സിനിമ കാണണമെന്നുവിചാരിച്ചാല് ടെലിഗ്രാമില് മൈ സെർച്ചിങ് എന്ന ആപ്ലിക്കേഷൻ എന്ന എ എ പീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് വേണ്ട സിനിമ അപ്പോൾത്തന്നെ നമ്മുടെ കൈകളിലെത്തുന്നു അതുപോലെത്തന്നെ ഒരുപാട് ആളുകൾ ഒരുപാട് പടങ്ങളാണ് നെറ്റ്വർക്ക് എന്ന മീഡിയയിലൂടെ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് അതിലൂടെ എങ്ങനെയെല്ലാം ചിലവാക്കാമെന്നും നാം ചിന്തിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് നാം എന്താണ് ചിന്തിക്കുന്നത് നാം എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കണം നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന ഭക്ഷണമല്ലാതെ എന്തും നമുക്ക് ഇന്ന് ഫോണിലൂടെ ലഭിക്കുന്നതാണ് ഭക്ഷണം ഇപ്പോൾ എനിക്കൊരു സാധനം കാഴിക്കണമെന്നുവെച്ചാൽ വെച്ചാൽ നമ്മുടെ വിരൽത്തുമ്പിൽ ഞെക്കിയാലുടനെ നമ്മുടെ വീടുകളില് ആ ഭക്ഷണം എത്തുന്നതാണ് അതുപോലെ കളറ് തിരിക്കുന്ന നമ്മുടെ ഓരോ സംഭവങ്ങൾ നിരവധി ആപ്പ്ളികേഷനുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ലഭ്യമാണ് ആ ആപ്പ്ളിക്കേഷനുകൾ എല്ലാം നാം മനസ്സിലാക്കുക ആ ആപ്പ്ലിക്കേഷന്ൽ വേണ്ട ഉപയോഗങ്ങൾ അതാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം അത് എന്താണെന്നും ഏതാണെന്നും എങ്ങനെയാണെന്നും നാം മനസ്സിലാക്കുക എങ്ങനെ ജീവിക്കണമെന്ന് ചിന്തിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ് ആപ്പ്ളിക്കഷന്കൾ അല്ല നമ്മുടെ ജീവിതങ്ങൾ നയിക്കേണ്ടത് നാം തന്നെയാണ് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി എടുക്കേണ്ടത് നമ്മുടെ ജീവിതങ്ങൾ മുന്നോട്ട് നയിക്കാൻ നാം ഒരോരുത്തർക്കും സഹായകരമാവും ആപ്പ്ലിക്കേഷൻ എന്താണെന്നും ആപ്പ്ലിക്കേഷൻ എങ്ങനെ ആയിരിക്കണമെന്നും നാം മനസ്സിലാക്കണം അത് വളർത്തിക്കൊണ്ട് വരണം നാം ഓരോരുത്തരും തന്നെയാണ് അങ്ങനെ ഇങ്ങനെ വളർന്ന് വളർന്ന് നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ മനോഹരമാക്കാൻ നമുക്ക് കഴിയണം അപ്പോളെല്ലാം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുക എന്ന് ഓർക്കുക